സ്ത്രീകൾ ഇന്ന് ഇന്നു മാത്രമല്ല ഒരു ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ തന്നെ നമ്മുടെ കാലങ്ങൾക്കൊക്കെ മുൻപേ തന്നെ ഒരുപാട് കായിക ഇനങ്ങളിൽ ഏ ഏർപ്പെട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് അവസരങ്ങളിൽ സ്ത്രീകൾക്ക് കായിക ഇനങ്ങളിൽ ഉണ്ട് ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഹൈ ജമ്പാണെങ്കിലും ലോങ്ങ് ജമ്പാണെങ്കിലും പിന്നതു പോലെ ഷട്ടിലാണെങ്കിലും ഓട്ടമത്സരമാണെങ്കിലും നടത്ത മത്സരമാണെങ്കിലും ഇങ്ങനെ ഏതൊരു ഏതൊരു ഏതൊരു കായിക ഇനത്തിലും നമ്മള് പെൺകുട്ടികളെയാണെങ്കിലും സ്ത്രീകളെയാണെങ്കിലും പിന്നെ പങ്കെടുപ്പിക്കുകയും അവർക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നുണ്ട് ഇപ്പം എനിക്ക് ഒരുപാട് സ്ത്രീകള് ഇപ്പം സാനിയ മിർസ അതുപോലെ പി റ്റി ഉഷ സൈന അങ്ങനെയുള്ള ഒരുപാട് പ്ര ഒരു നമ്മുടെ നമ്മുടെ എല്ലാവർക്കും അറിയപ്പെടുന്ന ചില ആൾക്കാരാണ് ഇവര് അപ്പോൾ ഈ പി റ്റി ഉഷ എന്ന നമ്മുടെ ജില്ലയിൽ നിന്നു തന്നെയുള്ള ഒരാളാണ് പി റ്റി ഉഷ അപ്പം അവരുടെ സ്പോട്സുളിലൊക്കെ അവര് ഏർപ്പെടുമ്പോൾ നമുക്ക് തന്നെ അതൊരു പ്രചോദനമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ക്രിക്കറ്റില് പിന്നെ നാഷണൽ ലെവലിൽ പോയി മത്സരിക്കാൻ പോവുന്ന ഇപ്പോൾ പ്രാക്റ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ വയനാട് ജില്ലയിലൊക്കെ ഒരു മൺറോഡി എന്നു പറയുന്ന സ്ഥലത്തുള്ള ഒരു മിന്നുമണി എന്ന് പറയുന്ന ഒരു കുട്ടി ആ കുട്ടിയൊക്കെ കായിക ഇനങ്ങളിൽ ചെറിയ ഒരു ഗ്രാമത്തിൽ നിന്നും വന്ന ഒരു കുട്ടിയാണ് അതിപ്പോൾ നാഷണൽ ലെവലിലാണ് കളിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഇന്ന് സ്ത്രീകൾക്കുള്ള കായിക അവസരങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും അതിലേക്ക് ഒരുപാട് ആൾക്കാരൊന്നും അതിലേക്ക് എത്തുന്നില്ല എങ്കിൽ പോലും ചിലരൊക്കെ കായിക ഇനങ്ങളിൽ ഏർപ്പെടുകയും അത് പിന്നെ അവർ മുറുകെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്